ഹലോ വിശ്വസിച്ചു കഴിക്കാവുന്ന കാർഷികോൽപ്പന്നങ്ങൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ് വളരെ അവിശ്വസനീയമായ കാര്യവുമാണ് കാരണം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ വളരെ രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ലഭിക്കുകയാണ് കൃഷികളും എല്ലാം അവർ രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നടത്തുന്നത് നമ്മുടെ ഈ കേരളത്തിൽ കാർഷികോൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് വിശ്വസിച്ച് കഴിക്കാവുന്ന കാർഷികോൽപ്പന്നങ്ങൾ ലഭിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കേരളത്തിലെ കാർഷിക രംഗത്ത് നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ ഇവയൊക്കെയാണ് കീടനാശിനികളുടെ ഉപയോഗം കീടനാശിനികളുടെ അമിത ഉപയോഗം കാർഷികോൽപ്പന്നങ്ങളിൽ അവശിഷ്ടങ്ങൾ അവശേഷിപ്പിക്കുന്നു ഇത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു രാസവളങ്ങളുടെ ഉപയോഗം രാാസവളങ്ങളുടെ ഉപയോഗം മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠതയെ കുറയ്ക്കുകയും കാർഷികോൽപ്പന്നങ്ങളിൽ രാസ അവശിഷ്ടങ്ങൾ അവശേഷിപ്പിക്കുകയും ചെയ്യുന്നു കീടനാശിനികളുടെ ഉപയോഗം കാർഷികോൽപ്പന്നങ്ങളിൽ അവിശിഷ്ടങ്ങൾ അവശേഷിപ്പിക്കുന്നു ഇത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ജൈവ കൃഷിയുടെ അഭാവം ജൈവ കൃഷി രീതികൾ കുറവാണ് ഇത് വിഷരഹിതമായ കാർഷികോൽപ്പന്നങ്ങൾ ലഭിക്കുന്നത് തടസ്സമാകുന്നു കീടനാശിനികളുടെ അമിത ഉപയോഗം കാരണം നാം പല പല ബുദ്ധിമുട്ടുകളും ഇന്നത്തെ കാലത്ത് അനുഭവിക്കുന്നു നിയന്ത്രണത്തിൻ്റെ അഭാവം കാർഷികോൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നത് ശക്തമായ നിയന്ത്രണ സംവിധാനങ്ങൾ ആവശ്യമാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സർക്കാരും കർഷകരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് ജൈവ കൃഷിയുടെ അഭാവം മൂലം നമ്മുടെ നാട്ടിൽ ജൈവ കൃഷി രീതികൾ കുറവാണ് ഇത് വിഷരഹിതമായ കാർഷികൽപ്പന്നങ്ങൾ ലഭിക്കുന്നതിനും തടസ്സമാകുന്നില്ല നമ്മുടെ ഇന്നത്തെ ഈ കാലത്ത് പല പല രാസപ്ദാർത്ഥങ്ങൾ കൊണ്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് കൃഷികളായാലും പല പല കാര്യങ്ങളും നാമെല്ലാം വളരെ ശ്രദ്ധാപൂർവ്വമായിരിക്കണം ഈ കാലഘട്ടത്തെ നമ്മുടെ വീട്ടിൽ തന്നെ രാസപദാത്ഥങ്ങൾ ഒന്നും ഉപയോഗിക്കാതെ നാം കൃഷി ചെയ്യേണ്ടതുണ്ട് എന്നാലേ ആരോഗ്യമായ ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കുവാനും ആസ്വദിക്കുവാനും ആരോഗ്യത്തോടെ നിലനിൽക്കുവാനും സാധിക്കുകയുള്ളൂ ഈ കാര്യങ്ങൾ നാം വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് കാരണം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ കീടനാശിനികളുടെ ഉപയോഗവും രാസവളങ്ങളുടെ ഉപയോഗവും ജൈവ കൃഷിയുടെ അഭാവങ്ങളും നിയന്ത്രണത്തിൻ്റെ അഭാവങ്ങളും നമ്മളെ തടസ്സപ്പെടുത്തുന്നു ഇത് മൂലം നമുക്ക് നല്ല നല്ല ഭക്ഷണങ്ങൾ ലഭിക്കുന്നില്ല ആരോഗ്യമായ ഭക്ഷണ പദാർത്ഥങ്ങൾ കിട്ടുന്നില്ല താൽപ്പര്യമുണ്ടെങ്കിലും നമ്മൾക്ക് ഇത് ആസ്വദിച്ച് കഴിക്കുവാൻ കഴിയുന്നില്ല കാരണങ്ങൾ ഇതെല്ലാമാണ് ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നാം വളരെ മുന്നോട്ടത്തോടെയും മുന്നോക്കത്തോടെയും പോകേണ്ടതുണ്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് ആഹാരം കഴിക്കുക താങ്ക് യൂ